രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കോവിഡ് പത്തൊമ്പത് എന്ന പകർച്ച വ്യാധി ഇന്ത്യയിലും ഇന്ത്യയ്ക്കകത്തും പുറത്തും എല്ലാം പകർന്നത് കോവിഡ് പത്തൊമ്പത് എന്ന് പറയും നമ്മൾ നിസ്സാരമായി വിചാരിക്കും ഇന്ന് നമുക്ക് ചിരിക്കാൻ പറ്റുന്നു കാരണം അതിനെ നമ്മൾ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് പുറത്തിറങ്ങാൻ പാടില്ല പല റെസ്ട്രിക്ഷൻസും റെഗുലേഷൻസും കാര്യങ്ങളും എല്ലാം നമുക്കുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ നമ്മൾ അതിന് നമ്മൾ ഒന്നായി നമ്മൾ ഒന്നായി അതിനെ നേരിട്ട് വന്നു കോവിഡ് പത്തൊമ്പത് എന്ന ആ കാലഘട്ടത്തിൽ ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഡിഗ്രി പഠിച്ച് കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ ആയിരുന്നു ഫസ്റ്റ് ഇയർ ലാസ്റ്റ് അപ്പോഴാണ് കോവിഡ് പത്തൊമ്പത് വന്നത് ആദ്യം ഒരു പനിയാണെന്ന് വിചാരിച്ച് എല്ലാവരും തട്ടികളഞ്ഞു ഇട്ടെങ്കിലും പക്ഷേ അത് ഓരോരുത്തർക്കും പകർന്ന് വീട്ടിൽ ക്വാറൻൻ്റൈൻ ഇരിക്കണം എന്താ ഭയങ്കര അത് നമ്മളെ ഒരു വിധം എല്ലാവരുടെയും ഇൻകം ജോലി ഓരോ കമ്പനി എല്ലാവരെയും എല്ലാത്തിനേയും ബാധിച്ചു അതായത് നമ്മൾക്കിന്ന് എന്തൊക്കെ ഉണ്ടോ ഇന്ന് എന്തൊക്കെയാണ് അത് നമ്മളെ പാർപ്പിടം എല്ലാം എല്ലാത്തിനേയും ബാധിച്ചു അതായത് ഒരു മനുഷ്യന് എന്തൊക്കെ ജീവിക്കാൻ എന്തൊക്കെ നമുക്ക് ആവശ്യം വേണം എന്തൊക്കെ നമുക്കത് ആവശ്യം വേണം ആ ആവശ്യത്തിൽ നമുക്കെന്തൊക്കെ നീഡ്സ് ആൻഡ് വാണ്ട്സുണ്ട് അതിനെയെല്ലാം അയിനെയെല്ലാം ബാധിച്ചു അതായത് ഒരു മനുഷ്യൻ ജീവിക്കാൻ ക്യാഷ് വേണം ക്യാഷ് വേണമെങ്കിൽ നമ്മൾ ജോലിയ്ക്ക് പോകണം ജോലിയില്ല ജോലിയില്ല ഒരു മനുഷ്യന്മാര് ആരും പുറത്തിറങ്ങുന്നില്ല നമ്മൾ വീട്ടിനകത്തടച്ചിരിക്കുന്നു പുറത്ത് വേറൊരാളുമായി നമ്മൾ ഒരു മുഖാമുഖം നമ്മൾ സംസാരിക്കുകയോ ഒന്നുമില്ല ഫോണിലൂടെ മാത്രം എല്ലാം എല്ലാവരും അതായത് ക്വാറൻൻ്റൈനിലിരിക്കേ ഈ കോവിഡ് പത്തൊമ്പത് വന്നവരെല്ലാവരും ഒരു റൂമിൽ ആരേയും പരസ്പര ബന്ധമോ തൊടാനോ ഒന്നിനും പാടില്ല അവർ അവരുടെതായ കുറച്ച് സാധനങ്ങളും സാമഗ്രികളും എല്ലാം എടുത്തു ഒരു റൂമിൽ അടങ്ങിക്കഴിഞ്ഞ് അങ്ങനെ പോവുന്നു ഇതൊക്ക ആ കാലത്ത് ഭയങ്കര ഇതൊക്കെ ആ കാലത്ത് നമ്മൾ അഭിമുഖീകരിച്ച് വന്നെങ്കിലും അത് ഭയങ്കര ഭയങ്കരമായ കോവിഡ് പത്തൊമ്പതെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് തന്നെ ബാധിച്ച ഒരു കാര്യമാണ് ചൈനയിലാണ് ചൈനയിലാണ് ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവന്നതെങ്കിലും പക്ഷേ നമ്മളെ ഇന്ത്യയിലും ഉണ്ടായിരുന്നു ചൈനയിലായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് ചൈനയിൽ നിന്നാണിത് വന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽക്കൂടി നമ്മൾ നമുക്കത് ഒരാൾക്ക് നമുക്കത് ഒരു ഡിപ്രഷൻ സ്റ്റേജ് വരെ എത്താം അങ്ങനെ ഈ അതായത് നമ്മളാരോടും സംസാരിക്കില്ല മിണ്ടില്ല വീട്ടിലിരിക്കുന്നു നമുക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് കൂടിയുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് വാങ്ങാൻ പുറത്ത് പോകണം പക്ഷെ പറ്റില്ല നമുക്ക് ഓൺലി മെഡിക്കൽ സ്റ്റോർസ് അതുപോലെതന്നെ ഈ പച്ചക്കറികൾ കട അങ്ങനെയൊക്കെയുള്ളതു മാത്രം ഓപ്പണായിട്ടുണ്ടായിരുന്നു നമുക്കെന്തെങ്കിലും ഒരു ഫുഡ് എക്സ്ട്രാ ഫുഡ് കഴിക്കണമെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല കാരണം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല നമുക്ക് പുറത്തിറങ്ങാൻ പോലീസ് ഭയങ്കര ഭയങ്കര ഫോഴ്സായിരുന്നു പുറത്തിറങ്ങരുത് ആളുകളൊരുമിച്ച് കൂടരുത് കല്ല്യാണം എല്ലാം ഓണം എല്ലാ ഉത്സവം ഓണം ക്രിസ്മസ് എല്ലാ പെരുന്നാള് എല്ലാം എല്ലാം എല്ലാം നമ്മൾ എവിടെയൊക്കെ ആളുകൾ കൂടുന്നോ അവിടെയൊക്കെ നമുക്ക് റെസ്ട്രിക്ഷൻസായിരുന്നു കാരണം പോകാൻ പാടില്ല അത് ഒരാളിൽ കൂടുതൽ ഒരു സ്ഥലത്ത് പാടില്ല അങ്ങനെയായിരുന്നു നമ്മൾ ഫാമിലിയായിട്ട് കഴിയുമ്പോൾക്കൂടെ നമുക്ക് വീടിൻ്റെ അകത്ത് വീടിൻ്റകത്ത് ഇരിക്കാം നമുക്ക് പുറത്തിറങ്ങാൻ പാടില്ല നമ്മൾ വേറെ ആളോട് നമ്മൾ മുഖാമുഖമായി സംസാരിക്കാനോ നമ്മൾ തൊടാനോ പിടിക്കാനോ ഒന്നും പാടില്ല നമ്മൾ മാസ്ക്ക് വയ്ക്കണമായിരുന്നു നമ്മൾ ഗ്ലൌസ് കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ എന്തൊക്കെ വേണോ ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് ഒരു ഭയങ്കര എല്ലാ എല്ലാ ജനങ്ങൾക്കും എല്ലാ ആളുകൾക്കും ഭയങ്കര ഒരു എന്താ പറയുക വലിയ നമ്മൾ ഒന്നിച്ച് അതിനെ അഭിമുഖീകരിച്ച് വന്നെങ്കിൽ പോലും നമുക്ക് ഇന്നും അത് ആലോചിക്കുമ്പോൾ ഭയങ്കര ഈ വൈറസ്സാണ് നമ്മൾ ഒരു സംസാരിക്കുമ്പോഴും തൊടുമ്പോഴും നമ്മളിലൂടെ അടുത്ത ഒരാൾക്ക് നമ്മൾ എറ്റവും കൂടുതൽ നമ്മൾ കുട്ടികളെയാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം അവർക്കാണ് എറ്റവും കൂടുതൽ ബാധിച്ച എത്ര എത്ര ആളുകളാണ് മരിച്ചുപോയത് ഒരു കുടുംബത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട ചെറിയൊരു പനി വന്ന് പിന്നെ അത് കോവിഡ് പത്തൊമ്പതായി അങ്ങനെ പിന്നെ കോവിഡ് പത്തൊമ്പത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ നെഗറ്റീവെന്ന് കാണിക്കും ചിലപ്പോൾ പോസിറ്റീവെന്ന് കാണിക്കും പോസിറ്റീവായാൽ നമുക്ക് ഉണ്ടെന്നാണർത്ഥം നമ്മൾ ക്വാറൻൻ്റൈനിലിരിക്കണം നമുക്കാവിശ്യമായിട്ടുള്ള മരുന്നും സാധനങ്ങളും എല്ലാ അതും നമുക്ക് വീട്ടിലെത്തിച്ചു തരും അങ്ങനെ പക്ഷേ കടകളുണ്ടായിരുന്നില്ല റെസ്റ്റോറൻ്റ്സുണ്ടായിരുന്നില്ല ഒന്നും ഇണ്ടായിരുന്നില്ല ആ ഒരു കാലഘട്ടം എന്നു പറഞ്ഞാൽ ഓൾമോസ്റ്റ് ആ ഒരു കാലഘട്ടത്ത് നമ്മൾ ഇന്ന് കുറേ അഭിമുഖീകരിച്ചു നമുക്ക് വിചാരിക്കാത്ത കാര്യങ്ങളിലൂടെയാണ് ആ ഒരു കോവിഡ് പത്തൊമ്പത് എന്ന കാലഘട്ടത്തിലൂടെ കടന്നുപോയത്